ഞാനൊരു ചെണ്ട വിദ്വാനാണ് പണ്ടുമുതൽ തന്നെ ചെണ്ട അഭ്യസിക്കുകയും അതുപോലെത്തന്നെ ഒരു നല്ലൊരു ചെണ്ട കൊട്ടുകാരൻ ആകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ എനിക്ക് പിയാനോ വായിക്കുവാനും അതുപോലത്തന്നെ പിയാനോ പഠിക്കുവാനും മതിയായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷേ പിയാനോ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു ഭീമമായിട്ടുള്ളൊരു തുക ഇല്ലാത്തതു കാരണം എനിക്ക് അത് വാങ്ങുവാനും അത് കൂടുതലായിട്ട് പഠിക്കുവാനും കഴിയുന്നില്ല ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഉ സങ്കടം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ചെണ്ട പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പഠിച്ചതിലൂടെ എനിക്ക് എൻ്റെ നാട്ടുമ്പുറത്തുള്ള ഉത്സവങ്ങളിൽ പങ്കെടുക്കുവാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുവാനും എനിക്കിന്നു കഴിയുന്നുണ്ട്